ഞങ്ങളുടെ സമുദായം കർഷകരായത് കൊണ്ട് തന്നെ കർഷകർ പരസ്പരം സഹായിക്കുന്ന രീതിയിൽ തന്നെയാണ് ഞങ്ങളുടെ സമുദായം കർഷകരെ കർഷകർക്കും കാർഷിക വൃത്തിക്കും ഞങ്ങളുടെ പിന്തുണ ലഭിക്കുന്നത് കാരണം കൃഷിയിലൂടെ കൃഷി ചെയ്യുമ്പോൾ തൻ്റെ കൂടെ കൃഷി ചെയ്യുന്ന ആളുകളെ കൂടി പരിഗണിക്കുക എന്നുള്ളതാണ് ഒരു കർഷകൻ തൻ്റെ കൂടെ തൻ്റെ സഹകർഷകർക്ക് നൽകുന്ന ഒരു പിന്തുണയും അവൻ്റെ പരിഗണനയും അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ സമുദായം ഒരു കർഷകരായത് കൊണ്ട് തന്നെ കൃഷി അവരുടെ നല്ല രീതിയിൽ ചെയ്യുക അതുപോലെ തന്നെ കൃഷിയിലെ പുതിയ രീതികളും പുതിയ അറിവുകളും തൻ്റെ സഹകർഷകർക്ക് കൂടി പങ്ക് വെച്ച് നൽകുക അതുപോലെ തന്നെ അവർക്ക് എന്തേലും സഹായങ്ങൾ ആവശ്യങ്ങളുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതുപോലെ അവർക്ക് എന്തെങ്കിലും അപകടം പറ്റിയാൽ അല്ലെങ്കിൽ പെട്ടെന്നുള്ള എന്തെങ്കിലും നഷ്ടങ്ങളെ സംഭവിച്ചാൽ അവർക്ക് ഒരു കൈത്താങ്ങാവുക സാമ്പത്തികമായും അല്ലെങ്കിൽ ശാരീരികമായും അവർക്ക് ഒരു താങ്ങാവുക എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ സമുദായത്തിൻ്റെ പിന്തുണയും പരിഗണനയും കർഷക സമുദായത്തിന് ലഭിക്കുന്നത് അതായത് കർഷിക സമുദായവും ഞങ്ങളുടെ സമുദായവും തമ്മിൽ മാറ്റമില്ല എന്നാണ് അടിസ്ഥാനപരമായി ഞാൻ പറഞ്ഞ് വെക്കുന്നത് അതായത് കർഷകർക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടാകുമ്പോൾ അത് ഞങ്ങൾ കൂടി ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് എന്ന് എന്ന് പരിഗണിച്ച് കൊണ്ട് എന്ന് ആലോചിച്ച് കൊണ്ടാണ് ഞങ്ങൾ അതിനെ ആ പ്രശ്നത്തെ സമീപിക്കുന്നതും അതുപോലെ തന്നെ അത് പരിഹരിക്കാൻ ശ്രമിക്കുന്നതും അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഞങ്ങളെ ഞങ്ങളുടെ ഒരു ഭാഗമായിട്ട് തന്നെയാണ് കർഷക സമുദായത്തേയും കർഷക വൃത്തിയെയും ഞങ്ങൾ പരിഗണിക്കുന്നതും അതുകൊണ്ട് തന്നെ കർഷകർ ഞങ്ങളിൽ നിന്നും ഒരിക്കലും വ്യത്യസ്തർ അല്ലെന്നും അതുകൊണ്ട് തന്നെ അവരുടെ എല്ലാ പ്രശ്നങ്ങളും ഞങ്ങളുടെ പ്രശ്നങ്ങളും കൂടിയാണെന്നും ഒരു പരിഗണനയോടെയാണ് ഞങ്ങൾ കർഷകവൃത്തിയെയും അതുപോലെ തന്നെ കർഷകരെയും കാണുന്നത് അതുകൊണ്ട് തന്നെ അവർക്ക് ഞങ്ങളുടെ ഭാഗത്ത് നിന്നും ഒരിക്കലും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവുകയില്ല അതുകൊണ്ട് അതുപ മാത്രമല്ല സാമ്പത്തികവും ശാരീരികമായ എന്ത് സഹായങ്ങളും അവർക്ക് ആവശ്യമുണ്ടെങ്കിലും ഞങ്ങളുടെ ഭാഗത്തിൽ നിന്നും യാതൊരു വിധ ഒരു യാതൊരു വിധ തടസവുമില്ലാതെ തന്നെ അത് അവർക്ക് ലഭിക്കുന്ന ലഭിക്കുന്നുണ്ട് എന്ന കാര്യം ഞങ്ങൾ ഉറപ്പ് വരുത്തുകയും ചെയ്യും അതുകൊണ്ട് തന്നെ കർഷകരും ഞങ്ങളുടെ സമുദായം വളരെയധികം കൈ കോർത്ത് കൈ കോർത്ത് കൊണ്ടാണ് ഞങ്ങൾ ഇതുവരെയും പോകുന്നത് അതുകൊണ്ട് തന്നെ ഇനിയും അങ്ങോട്ടുള്ള കാലത്തും കർഷകരും ഞങ്ങളുടെ സമുദായവും ഒരു വ്യത്യാസവുമില്ലാതെ നമ്മൾ അവരിൽ പെട്ടവരും അവർ നമ്മിൽ പെട്ടവരുമാണെന്ന് ഒരു രീതിയിൽ ഒരു സഹ സന്നാഹ രീതിയിലുള്ള ഒരു സഹജാ ബോധം രീതിയിലുള്ള ഒരു മുന്നോട്ട് പോക്കായിരിക്കും കർഷകരും ഞങ്ങളുടെ സമുദായവും തമ്മിൽ ഉണ്ടാകുന്നത് ഒരു വ്യത്യാസവും ഉണ്ടായിരിക്കുന്നതല്ല